കേരളത്തിൽ നിറയെ നിറയെ എന്ന് പറയാനായിട്ട് നിറയെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളുണ്ട് അവിടെയൊന്നും ഇതുവരെ നമ്മുടെ കേരളത്തിൽ വരുന്ന വിനോദസഞ്ചാരികൾക്ക് അറിയാത്തത് അറിയാത്തതായിട്ട് കുറെ ഉണ്ട് അപ്പം അത് സർക്കാർ ഇതുവരെ പുറത്ത് ഇറക്കിയിട്ടില്ല അതിലൊന്നാണ് കായംകുളം ലേക്ക് പാലസ്സ് ലേക്ക് പാലസ്സ് നവീകരണം നടന്നുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ അവിടെ നവീകരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല വിനോദ സഞ്ചാര കേന്ദ്രമായിട്ട് എൻ്റെ ഒരു ഭാഗത്തു നിന്നെനിക്ക് പറയാൻ പറ്റും അതുകൂടാതെ തന്നെ കൃഷ്ണപുരം കൊട്ടാരം പണ്ടത്തെ രാജാക്കന്മാർ താമസിച്ചിരുന്നതാണ് അവിടെ പക്ഷെ അങ്ങനെയാർക്കും അറിയത്തില്ല ഒത്തിരി ഒത്തിരി ഒത്തിരി അവർ ഉപയോഗിച്ചിരുന്ന വാൾ പരിച അതുകൂടാതെ തന്നെ അവരുടെ വസ്ത്രങ്ങൾ അവർ യൂസ് ചെയ്തിരുന്ന നാണയങ്ങൾ ഒക്കെ ഉണ്ട് അപ്പം